ഇത് ഈ കലാകാരൻമാർക്കെ ഇങ്ങനെ തയ്ച്ച് നിങ്ങള്ക്ക് കൊടുക്കുന്നവർക്ക് മതിയായ പ്രാധാന്യം കിട്ടാത്തതിൻ്റെ കാരണം അവര് കൊടുക്കുന്നതനുസരിച്ച് വേതനം അവർക്ക് ഒരിക്കലും ലഭിക്കാറില്ല ആ വേതനം അവർക്ക് കിട്ടിയാലല്ലെ അവർക്ക് സംതൃപ്തി ഉണ്ടാവത്തുള്ളു അത് ചെയ്തുകൊടുക്കാതെ കിട്ടാത്തത് കൊണ്ടാണ് അവര് അതിനോട് നെഗറ്റീവായിട്ട് നി ഇഷ്ടമില്ലാതെ നിൽക്കുന്നത് പിന്നെ അവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകളും സാധനത്തിൻ്റെ വില വിലക്കയറ്റങ്ങളും അങ്ങനെയെല്ലാം വരുമ്പോൾ അവര് അവരെ അതിനുവേണ്ടി വളരെ ബുദ്ധിമുട്ടും അനുഭവിക്കാറുണ്ട് പിന്നെ അവരുടെ സാഹചര്യം ജീവിത സാഹചര്യങ്ങളും അതിന് അനുകൂലമാണെങ്കിലെ അവർക്ക് അതുപോലെ ഇതെല്ലാം സാധനങ്ങളെല്ലാം മേടിച്ച് തയ്ച്ച് കൊടുക്കാനും മേടിക്കാനും പ്രാ കൊടുക്കാന് പറ്റത്തുള്ളൂ സാധനങ്ങ് സാധനങ്ങളുടെ അപര്യാപ്തത സാധനങ്ങളിപ്പോള് നമ്മള് ചെന്ന ഷോപ്പിൽ മേടിക്കുമ്പോള് അതനുസരിച്ച് അത് കിട്ടിയില്ലെങ്കില് അതുപോലെ ചെയ്യാനും പിന്നെ അവര് ചെയ്യുന്ന പ്രാ അതനുസരിച്ച് അവർക്ക് അർഹത കിട്ടിയില്ലെങ്കിലും അവർക്ക് അതിൻറ്റേതായ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ ഉണ്ടാകാറുണ്ട് അതായിരിക്കും കൂടുതലും ഇങ്ങനെ ഇതിൽ നിന്നും കലാകാരന്മാരെയും ഇങ്ങനെ ജോലി ചെയ്യുന്ന ചെറുകിട ജോലി ചെയ്യുന്നവർക്ക് ഇതിൽ നിന്നും മാറാനുള്ള കൂടുതലായിട്ടുള്ള കാരണങ്ങള് പിന്നെ അവരുടെ ഒരു സാമ്പത്തിക നിലവാരം ഉയർത്ത് ഉയരാനായിട്ട് ഇതിൽ ഇതിനുവേണ്ടി ഒരു പ്രത്യേക ഒരു ഇതോ ഗ്രൂപ്പോ അങ്ങനെ സ സഹായമോ അങ്ങനെയുള്ളതൊന്നും അവർക്ക് ലഭിക്കാറുമില്ല പിന്നെ വീട്ടിലെ ബുദ്ധിമുട്ടുകളും സാഹചര്യങ്ങളുമൊക്കെ നോക്കി മനസ്സിലാക്കിയാണ് അവരതെല്ലാം ചെയ്ത് കൊണ്ടുവരുന്നത് ചെയ്തുവരുമ്പോഴത്തേക്കും അവർക്ക് സമ്മ അതിനനുസരിച്ച് അർഹമായ വേതനം കിട്ടിയില്ലെങ്കിൽ അവര് അതിന് ബുദ്ധിമുട്ട് അനുഭവിക്കുകയും പിന്നെ അതിനീട് ഉണ്ടാകുകയും ചെയ്യും അതിനെക്കുറിച്ച് പഠിപ്പിക്കുകയും അതിനെ മനസ്സിലാക്കുകയും ചെയ്ത ഒരു ക്ലാസ്സുപോലെ അങ്ങനെ ഉള്ള സംവിധാനങ്ങളും അവർക്ക് ഉയരാനുള്ള ഒരു വഴിയും ഒക്കെ തെളിച്ചു കൊടുക്കുകയാണെങ്കിൽ അവർക്ക് അതിനോട് താല്പര്യവും അതിനേട് താല്പര്യമുള്ള കുറേ ആള്കളുണ്ടെങ്കിൽ ആ ജോലി ചെയ്യാനായിട്ട് അവർക്ക് അയിനോട് താല്പര്യവും ഉണ്ടാകും അത് അപ്പോള് കലാകാരന്മാർക്കെല്ലാം ഉയർച്ച ഉണ്ടാകാനുള്ള വഴി തെളിയിക്കുകയും തെയ്യ് ചെയ്യും